ഹലോ

അതേലോ ആ പറഞ്ഞോളൂ മേഡം അയ്യോ മേഡം പറ്റിയില്ലല്ലോ എൻ്റെ കുട്ടിയുടെ കൂടെ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു പിന്നെ അവക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലും കൊണ്ടു പോകണമായിരുന്നു അതു ഞാൻ മേടത്തിനോടെ നേരത്തെ ചോദിച്ച് അനുവാദം വാങ്ങിച്ചതല്ലായിരുന്നോ പിന്നെ ലാസ്റ്റ് നേരത്ത് ഇങ്ങനെ പറഞ്ഞാൽ എന്നാ ചെയ്യാനാണ് മേഡം

മേഡം അവ സ്കൂളിൽ നിന്നു വിളിച്ചു കൊണ്ടു വന്നിട്ടു വേണം ഹോസ്പിറ്റലിൽ കൊണ്ടു പോകാൻ കാരണം കൊച്ചിന് നാളെ എക്സാം നടക്കുകയാണ് അതു കൊണ്ടാണ് അല്ലെങ്കിൽ മേഡത്തിനറിയാമല്ലോ ഞാൻ എത്ര ഇമോഷണൽ സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ എന്നെ കൊണ്ട് ആകുന്നതു പോലെ ഞാൻ വന്നു നിന്ന് ചെയ്യാറുള്ളതല്ലേ ഇത് സാഹചര്യം ആയതു കൊണ്ട് അല്ലെ മേഡം

മേഡം ഒറ്റക്ക് മനസ്സിലാകാത്തതു കൊണ്ടല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷനായതു കൊണ്ടാണ് എനിക്കിപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് വേറെ പോ കൊച്ചിനെ ആരും കൊണ്ടു പോകാൻ ഇല്ലല്ലോ മേഡം ആ ഒരു സിറ്റുവേഷനായതു കൊണ്ടാണ്

മേഡം ആ എക്സാം കഴിയുമ്പോൾ ആ ഒരു ടൈമാകും മേഡം പിന്നെ എങ്ങനെയാണ് പോകാൻ പറ്റുക അല്ല എങ്ങനെയാണിപ്പോൾ നിൽക്കാൻ പറ്റുക അതു കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മേഡം എക്സ്ട്ര പൈസയുടെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല മേടത്തിനറിയാമല്ലോ ഞാൻ എത്ര എങ്ങനെ ആണെങ്കിലും ഞാൻ നിൽക്കണേ ആണെങ്കിലോ ഈ ഒരു സിറ്റുവേഷൻ ആയതു കൊണ്ടല്ലേ ഇത്രയേ ഇങ്ങനെ ഞാനത് നേരത്തെ മേഡത്തോട് പറഞ്ഞതുമല്ലായിരുന്നോ

മേഡം കൊച്ചിനെ വിളിച്ചു കൊണ്ടു വരുമ്പോൾ തന്നെ ഒരു അഞ്ചു മണി ആകും പിന്നേ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ഒര അഞ്ചര ആകും പിന്നെ എന്തായാലും അങ്ങോട്ട് വരാൻ പറ്റില്ല കൊച്ചിന് കുറച്ച് പനി അധികമാണ് പിന്നെ എക്സാം ആയതു കൊണ്ടു മാത്രമാണ് സ്കൂളിലായിരുന്നാലും വിടുന്നത് മേഡം അത് മേഡം എൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം

മേഡം വേറെ ആരെങ്കിലൊന്നു വിളിച്ചു നോക്കത്തില്ലായിരുന്നോ മേഡം ഇങ്ങനെ ഒരു സാഹചര്യം ആയതു കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഏങ്ങനെയായിരുന്നാലും മേഡത്തിനറിയാമല്ലോ എന്ത് സാഹചര്യമാണെങ്കിലും മേഡത്തിൻ്റെ വീട്ടിൽ ഞാൻ വരുമല്ലോ മേഡം വിളിച്ചു കഴിഞ്ഞാൽ മേഡം എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല എനിക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയോ ആ എങ്കിൽ ഞാൻ നോക്കട്ടെ മേഡം ശരി എങ്കിൽ ഞാൻ വിളിക്കാം എന്നിട്ട്